സാങ്കേതിക വിദ്യ സാങ്കേതിക വിദ്യയുടെയും ഇൻറർനെറ്റിൻ്റെയും വളർച്ചയ്ക്കൊപ്പം മലയാള ഭാഷയുടെ ഉപയോഗത്തിൽ വന്ന മാറ്റങ്ങൾ ഏറെയാണ് വാക്കുകൾ കൊണ്ട് നിർവചിക്കുക അസാധ്യമാണ് കാരണം ഇന്ന് ഒരു പേപ്പറിലൊരു പേനാ കൊണ്ട് എഴുതുന്ന സംസ്കാരം ഇന്നത്തെ തലമുറയിൽ ഏറെ കുറഞ്ഞിരിക്കുന്നു കൂടുതലും ലാപ്ടോപ്പ് മൊബൈൽ ഡെസ്ക് ടോപ്പ് എന്നീ മേഖലകളിലാണ് എഴുത്തുകൾ വ്യാപകമായി കണ്ട് വരുന്നത് അപ്പമതു കൊണ്ട് മലയാളത്തിലെ അക്ഷരങ്ങൾ വ്യക്തമായിട്ട് ലിപികൾ ചേർത്ത് കൊണ്ട് എഴുതുകയോ പരിശോധിക്കയോ പരീക്ഷിക്കയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇന്ന് മലയാളം മക്കളുടെ ഇടയിൽ ഏറെ കുറവ് വന്നിരിക്കയാണ് അതുകൊണ്ട് ഭാഷയ്ക്ക് ഭാഷ ചാരുതയോ ഭാഷയിൽ കൂടി തൂലിക ചലിപ്പിച്ച് എഴുതി പുസ്തകങ്ങളാക്കുന്ന സംഭവങ്ങൾ ആവിഷ്കാരങ്ങൾ ഇന്നത്തെ യുവ തലമുറയിൽ പരിതാ പരിമിതപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നാമിന്ന് കടന്ന് പോകുന്നത് ഇത് നമ്മുടെ സംസ്ഥാനത്തെയും ദേശത്തെയും ഏറെ പ്രതികൂലമായി ബാധിക്കുന്നൊരു മേഖലയായി ഞാൻ കാണുന്നു ഈ യുവ തലമുറയിലാണേലും കുട്ടികളിലാണേലും എഴുതുന്ന ശീലവും അക്ഷര സ്പുടതയൊക്കെ ഏറെ പ്രോത്സാഹിപ്പിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു നന്ദി